നമ്മളുടെ പ്രാദേശിക പത്രത്തിൽ വിദ്യാഭ്യാസത്തെ മുൻനിർത്തി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വാർത്തകൾ കുറേയേറെ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ പ്രാദേശിക പത്രത്തിൽ വിദ്യാഭ്യാസം സാധാരണ ഒരാളുടെ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെപ്പറ്റി ഒരുപാടങ്ങനെ പ്രദേശിക കാര്യങ്ങൾ കൊടുക്കാറില്ല ഉന്നതവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആഴ്ച്ചയിലൊരിക്കൽ വരുന്ന ഉന്നതവിദ്യാഭ്യാസം അതിൻ്റെ സാധ്യതകൾ ഇനി അതല്ലെങ്കിൽ ജോലിസാധ്യതകൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആഴ്ച്ചയിലൊരിക്കൽ രണ്ടുതവണ അങ്ങനെ എന്തെങ്കിലും വരുന്നു എന്നുള്ളതല്ലാതെ പ്രാദേശിക പത്രത്തിൽ വിദ്യാഭ്യാസത്തെ ഉന്നതവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വാർത്ത വളരെക്കുറവാണ് വരുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം തരുന്നതിന് ഈ പ്രാദേശിക പത്രങ്ങൾ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നില്ല എന്നു വേണമെങ്കിൽ പറയാം കാരണം പ്രാദേശിക പത്രത്തിൽ കുട്ടികൾക്കു വേണ്ട മാർഗ്ഗനിർദ്ദേശം തരുന്നു എന്ന് പറയുമ്പോൾ അത് പരീക്ഷാക്കാലങ്ങളിൽ വരുമ്പോൾ ഏതെങ്കിലും കണക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പ്രഗൽഭരായ ആളുകൾ പറയുന്നതല്ലാതെ അത് അതിൻ്റേതായ രീതിയിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമൊന്നും ഈ പ്രാദേശികപത്രത്തിൽ നിന്നുകൊണ്ട് ഉന്നതവിദ്യാഭ്യാസം വിദ്യാഭ്യാസമേഖലകളിലൊന്നും ഉൾക്കൊള്ളിച്ചൊന്നും കിട്ടുന്നില്ല